ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട് അത് ഫാക്ടറിക്കു വേണ്ടിയൊന്നും ജോലി ചെയ്യുന്നതല്ല കാശിനു വേണ്ടിയും ജോലി ചെയ്യുന്നതല്ല ചിലപ്പോൾ ഒരു ഷർട്ട് തയ്ച്ചു കൊടുത്താൽ ഇരുന്നൂറ് രൂപ മേടിക്കും ബ്ലൗസ് തയ്ച്ചു കൊടുത്താൽ നൂറ്റൻപത് രൂപ വാങ്ങിക്കും സൽവാർ സ്യൂട്ട് ഒന്നും ഞാൻ ശരി തയ്ക്കാറില്ല ചുരിദാർ തയ്ച്ചാൽ നൂറ്റൻപത് രൂപാ മേടിക്കും അങ്ങനെ ചില സമയങ്ങളിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ വല്ലവർക്കും പുറത്തു ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടാവശ്യത്തിന് ഉള്ളതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കുന്ന ആളാണ് തയ്യൽ പഠിച്ചിട്ടുണ്ട് എന്നാലും കൂടുതലൊന്നും അറിയത്തില്ല സൽവാറും സ്യൂട്ട് ഒന്നും തയ്ക്കാൻ അറിയത്തില്ല ബാക്കിയുള്ളതൊക്കെ തയ്ച്ചു കൊടുത്ത് വീട്ടാവശ്യത്തിന് പുറം ചിലവിനുള്ള പൈസകൾ ഞാൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്